എൻറെ വീടിൻ്റെ അടുത്തിപ്പം പലതരത്തിലുള്ള കരകൗശല മേഖലകളും പല സ്ഥാ സ്ഥാപനങ്ങളും ഇപ്പോൾ അതുവഴി ബന്ധപ്പെട്ടിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ പല ആളുകൾക്ക് ഇന്ന് തൊഴിൽ ലഭിക്കാൻ അതുകൊണ്ട് കാരണമായി പലർക്കും വിദേശരാജ്യങ്ങളിൽ നിന്നും കൊറോണ സമയങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് വന്ന പല ആളുകൾക്കും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചു അതുവഴി അവർക്ക് അവരെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടു പോകാനും സാധി സാധിക്കുന്നുണ്ട് അത് അത് അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള സാധനങ്ങൾ പല വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുക ആ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ആ കമ്പനിക്ക് നല്ല രീതിയിലുള്ള ലാഭവും ഉണ്ടാക്കുന്നുണ്ട് ആ ലാഭവിഹിതം കൂടി തൊഴിലാളികൾക്ക് ആ സ്ഥാപനം വീതിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടു പോകാനും ഇതിൻ്റെ അവസരങ്ങൾ ഇതുവഴി ഉണ്ടാക്കുന്നുണ്ട് പല കരകൗശല സാധനങ്ങളായ പലതരത്തിലുള്ള മണ്ണിനെക്കൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ മണ്ണ് കൊണ്ട് അല്ലാതെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പല ടോയ്സുകൾ അതുപോലെ മൺപാത്രങ്ങൾ പലതരത്തിലുള്ള ചട്ടികൾ അങ്ങനെ പല സാധനങ്ങളും അവ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് അത് അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പല വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്